കണ്ണൂർ ജില്ലയിലെ പ്രധാന കൃഷി ഉൽപ്പന്നങ്ങളും കൃഷി രീതികളുമെന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത് നാണ്യ വിളകളാണ് നാണ്യ വിളകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വാണിജ്യ വ്യവസായത്തിന് സഹായിക്കുന്ന അതായത് റബ്ബർ കശുവണ്ടി അതുപോലുള്ള ഇതാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത് അല്ലാതെ നെല്ല് പച്ചക്കറി എന്നിവയുണ്ട് പക്ഷേ കൂടുതലായി ഇവിടെ കാണപ്പെടുന്നത് നാണ്യവിളകളാണ് അതിനനുയോജ്യമായ കാലാവസ്ഥയാണ് കണ്ണൂർ ജില്ലയിലേത് അതുപോലെ തന്നെ ഇവിടെ കന്നുകാലികളായ പശു ആട് കോഴി അതുപോലെ തന്നെ എല്ലാ കൃഷിയും ഇവിടെ നടക്കുന്നുണ്ട് കൂടുതലും പശു ഇവിടെ വളരെ അനുയോജ്യമായൊരു ഇതാണ് പിന്നെ ഇവിടെ ജലത്തിന് ക്ഷാമം ഒരിക്കലും ഉണ്ടാകാറില്ല ഇവിടെ അധികം നല്ല കാലാവസ്ഥയാണ് എപ്പോഴും മഴപെയ്യും അതുപോലെ തന്നെ ജലക്ഷാമം ഇവിടെ അധികം രൂക്ഷമാകാറില്ല അതുപോലെ തന്നെ ഇന്ന് കണ്ണൂർ ജില്ലയിലെ കൃഷി രീതികൾക്ക് വേണ്ട സാങ്കേതിക വിദ്യകൾ കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കുവാണ് പല യന്ത്രങ്ങളും ഇന്ന് ഇവിടെ ഉണ്ട് കൃഷി ചെയ്യാനാവശ്യമായ